ഹലോ എൻ്റെ പേര് സഫ്വാൻ ഞാൻ വിളിച്ചത് എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ഹൈറേഞ്ചിൽ ഒരു അവധിക്കാല വീട് നോക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആൾമോസ്റ്റ് ഫിനിഷ് ആവുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഉള്ളത് അപ്പം അവർ ഇതിൻ്റെ ഓണേഴ്സിനോട് പറഞ്ഞത് വച്ചിട്ട് അതിൽ ചെറിയ ഒരു കണക്ഷൻ പ്രോബ്ലം ഒരു ഇലക്ട്രിസിറ്റി കണക്ഷൻ പ്രോബ്ലം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയ സമയത്ത് അതിൽ കുറച്ചു വളരെ അപകടം പിടിച്ച രീതിയിലുള്ള കുറച്ചു കണക്ഷൻ പ്രോബ്ലംസും ഒക്കെ കാണാനുണ്ട് പിന്നെ ഹൈ റേഞ്ച് ഏരിയ ആയതുകൊണ്ട് തന്നെ റേയ്ഞ്ചും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഇവിടെ ഒരു ലാൻഡ് ഫോൺ കണക്ഷനും പിന്നെ ഒരു കേബിൾ കണക്ഷനൊക്കെ ഒരു ആവശ്യകത ഉണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ ഒരു വിവരവും അതിൻ്റെ പ്രൊസീജിയർ അത് ഇനി എന്തൊക്കെയാണ് വേണ്ടത് ഇതിൻ്റെ ഒരു കൃത്യമായ പ്രൊസീജറും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒരു തവണ വിളിച്ച സമയത്ത് അപ്പോൾ ഇതിന് വേണ്ടി കുറച്ചു അന്ന് വിളിച്ചതിൻ്റെ ഒരു കാര്യക്ഷമമായിട്ട് ഇതിനെ കണ്ടിട്ടില്ലാത്ത കൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ വിളിച്ചു കൃത്യമായി പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കൃത്യമായ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ എനക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാമായിരുന്നു ആൾമോസ്റ്റ് ആ വീട് ഏകദേശം എൻ്റെ ഏകദേശം അവധിക്കാലങ്ങളും മുഴുവൻ ചിലവഴിക്കാൻ ഉള്ള ഒരു രൂപത്തിലുള്ള ഒരു ആണ് ഞാൻ ഇപ്പം അത് കാണുന്നത് അപ്പം അതിൻ്റെ ഒരു കത്യമായ ഒരു പ്രൊസീജിയർ കാര്യങ്ങൾ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഓക്കെ താങ്ക് യു